കളികൾ നമ്മളെ പിന്നെ ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിന് എങ്ങനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ കളികളിൽ നമ്മളെ ശരീരത്തിനും മനസ്സിനും എന്നും ഒരു സന്തോഷം മനസ്സിനൊരു തൃപ്തി പിന്നേ നമ്മൾക്ക് ഒരു സന്തോഷം നമ്മുടെ മൈന്റ് എപ്പളും ഫ്രീയായിട്ട് ഇരിക്കാന് സഹായിക്കുന്നുണ്ട് അങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ ഉണ്ട് നമ്മളെ കളികളെ കൊണ്ടുള്ള ഉപകാരങ്ങൾ കുറേ നമുക്ക് ഉണ്ട് പിന്നെ ഇപ്പം ഞാന് എന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ ഞാൻ ഒരൂ പിന്നെ പേഷ്യൻ്റ് ആണ് എനിക്ക് ഇപ്പോൾ സ്ഥിരം ഒരൂ ഇത് ടാബ്ലെറ്റ് കഴിക്കേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് അതിലുള്ളൊരു അപസ്മാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗം എനിക്കുണ്ട് അപ്പം അത് അത് തന്നെ വച്ച് നോക്കുമ്പോൾ ആ രോഗത്തിന് ടെന്ഷന് അങ്ങനത്തെ കാര്യങ്ങൾ ഒര്ക്കണം പിന്നെ കുറേ നമുക്ക് ഉറക്കങ്ങൾ കാര്യങ്ങൾ അതെല്ലാം മൈൻ്റ് എപ്പോഴും ഫ്രീ ആക്കി നിൽക്കാന് വേണ്ടിയിട്ടാണ് മൈൻ്റെ എപ്പോഴും ഫ്രീ ആക്കി വയ്ക്കണം എന്നാണ് എന്നോട്

ആ ഇതെല്ലം വച്ച് നോക്കുമ്പോൾ നമ്മളെ ഇത് എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിന് കളികള്ക്ക് നമ്മളെ ശരീരത്തിനെ പൂര്ണ്ണമായിട്ട് തൃപ്തിപ്പെടുത്താന് കഴിയും ആ രോഗങ്ങളിൽ നിന്നെല്ലാം കുറച്ച് കുറച്ച് എന്നല്ല കൂടുതലും മുക്തി നേടാന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ആ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചിന്ത നമ്മളെ മൈന്ഡിൽ നിന്ന് പോവാന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് എപ്പോഴും കളി കളികളെ കൊണ്ട് പിന്നേ നമ്മളെ അതേ അതേപോലെ തന്നെ നമ്മളെ പിന്നെ ക്ഷേമത്തിനും നമ്മളെ മൈന്ഡ് ഫുള്ളായിട്ട് നമുക്ക് ഫ്രീഡം തരുന്നുണ്ട് ഇത് കളിയിലിപ്പോൾ കുറച്ച് നമുക്കറിയാം ആവേശത്തിൽ കളി പോകുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എല്ലാ കളിയെല്ലാം കഴിഞ്ഞിട്ട് ആയിട്ടകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വര്ത്തമാനം പറഞ്ഞ് കുറച്ച് അവിടെ ഇരുന്ന് നമ്മളെ പിന്നെ ആള്ക്കാറോടെല്ലാം കുറച്ച് ഒര്ല് ഇതെല്ലാം പറഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ മൈന്ഡ് ഫുള്ള് ഫ്രീ ആവും നമ്മൾക്ക് കുറച്ച് ആശ്വാസമാവും പിന്നെ ഓടിച്ചാടി കളിക്കുമ്പം നമുക്ക് ഇപ്പോൾ നമ്മളെ ഏത് ഏത് കളിയാലും പല കളികളുണ്ടല്ലോ പല ഫുട്ബോള് പിന്നെ കബഡി ക്രിക്കറ്റ് ഫുട്ബോള് പിന്നെ ഇത് ചെസ്സ് അങ്ങനത്തെ എല്ലാം ഉണ്ട് അപ്പോൾ ഈ ചെസ്സ് കളിയിലൂടെ നമുക്ക് ബുദ്ധിവളര്ച്ച കുറച്ച് കൂടുന്നത് കൂടുന്നത് ഒരു കളിയാണ് ചെസ്സ് അതും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിലിപ്പോൾ പറയാമെന്ന് പറഞ്ഞാൽ ഇതേ ഇത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് സഹായകമായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പോൾ അത് ഇങ്ങനെ പെട്ടെന്ന് പറയാമെന്ന് വച്ചാൽ ഇപ്പോൾ പിന്നെ കളിയിലെ കാര്യങ്ങൾ പറഞ്ഞ് ഈ ഇങ്ങനെ പെട്ടെന്ന് പറയാന് പറ്റുമ്പോൾ കുറേ പറയണമെന്നുണ്ട് കുറേ കാര്യങ്ങള്ണ്ട് നമുക്ക് പറയാന് വേണ്ടിയിട്ട് കളി കളി യിൻടൂടെ നമ്മക്ക് കിട്ട്ന്നത് ചെറിയെ നമ്മളെ ശരീരത്തിനും പിന്നാ ഇത് മനസ്സിനും പിന്നെ കുറച്ച് ചെറിയ ഇതൊന്നും അല്ല നമുക്ക് കളി കൊണ്ട് കിട്ടുന്നത് കുറേ നല്ല നമുക്ക് ഇത് ഫ്രീയാവാനും ഉപയോഗപ്രദമായ കുറേ കാര്യങ്ങൾ നമുക്ക് കളിയിലൂടെ കിട്ടുന്നുണ്ട് പിന്നെ അതേ അതേപോലെ തന്നെ നമ്മളെ ഇപ്പം എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് വരുമ്പം പിന്നെ നമുക്ക് കുറേ പോസിറ്റീവ് എനര്ജി കിട്ടുന്നുണ്ട് പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളെ എന്തെങ്കിലും ഒരു പിന്നെ വര്ക്കിൻ്റേതോ കാര്യങ്ങളോ അങ്ങനെ ഇതായിട്ട് നമ്മൾ നമ്മൾ അതിന്റെ കുറച്ച് ടെന്ഷനിലുണ്ടാവുമ്പോൾ നമ്മൾ അവിടത്തേക്കു എത്തിയിട്ടകുമ്പോൾ അങ്ങനത്തെ നമ്മളേ കുറച്ച് നമ്മൾക്ക് അറിയുന്നത് ആള്ക്കാരുണ്ടാവുമല്ലോ ഒന്നിച്ച് കുറച്ച് ആള്ക്കാരുണ്ടാവും ഈ കളിക്കാന് വന്ന നമ്മൾ ഒന്നിച്ച് കളിക്കാന് വരുന്ന എപ്പോഴും വരുന്ന ആള്ക്കാരുണ്ടാവും അപ്പോൾ അവരോട് ഈ സംഭവം നമ്മൾ നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പം നമ്മളെ ഇങ്ങനെ ഈ കളിയിലൂടെ അല്ലേ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളെല്ലാം കിട്ടുന്നത് പിന്നെ അപ്പോൾ അതിലൂടെ നമുക്ക് ഇത് കിട്ടുമ്പോൾ നമ്മൾ നമ്മൾ അവരോട് ഇങ്ങനെ കാര്യമുണ്ട് ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ട് എന്നെല്ലാം പയുമ്പോൾ ആ പ്രശ്നത്തിന് സോള്വാക്കാന് വേണ്ടിയിട്ട് കുറച്ച് ആള്ക്കാറെ ഒരു ഈ നമുക്ക് കുറച്ച് പോസിറ്റീവായ കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞ് തരുമ്പോൾ നമ്മൾക്ക് ആടയന്നെ ആ ഒരു നമ്മളെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം നമ്മളെ അങ്ങിനത്തൊരു പ്രശ്നമേ നമുക്ക് ഉണ്ടായിട്ടില്ല എന്നൂള്ളൊരു രീതിയിലാണ് നമ്മളെ മനസ്സിനെ കൊണ്ടു പോവാന് കഴിയുന്നത് നമുക്ക് കൊണ്ടു പോവാന് കഴിയുന്നത് എന്നല്ല അതങ്ങനെ ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു കളി കളി കാരണമാണ് അതെല്ലാം നമുക്ക് കിട്ടും എന്നുള്ളത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ കളിയിൽ ഞാന് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങളാണ് കളിയിൽ കാണുന്നുള്ളത് നമ്മൾക്ക് നമ്മളെ ശരീരത്തിനായാലും പിന്നെ ഏതൊരു അസുഖം ഉള്ള വ്യക്തിക്കും പല രീതിയിലുള്ള ഇത് കളികൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് പോലെ ഈ പിന്നെ സട്ടില് പിന്നെ നമ്മളെ ബോഡീവര്ക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ലോണം നമുക്ക് സ്റ്റാമിനയും കാര്യങ്ങളും അതെല്ലാം അതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ അത് ശരീരത്തിനാണ് നമുക്ക് സ്റ്റാമിന കിട്ടുന്നുണ്ട് പിന്നെ ശരീരത്തിന് നടത്തം എന്ന് പറഞ്ഞാൽ രാവിലെ കുറേ ആള്ക്കാർ നടക്കാന് വേണ്ടി പോവുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു അതിൻ്റെ ഒന്നിച്ച് ഒരു കളിയും കൂടെ ആയാൽ നമുക്ക് ഫുള് പോസിറ്റീവ് എനര്ജി ആണ് രാവിലെ തന്നെ ഫുള് പോസിറ്റീവ് എനര്ജി കിട്ടുന്നുണ്ട് അത് അതേപോലെ തന്നെ ഈ നമ്മളെ ഇതിനും നമ്മളെ മൈന്ഡിനും നല്ല ഒരു പോസിറ്റീവ് എനര്ജി നമുക്ക് രാവിലെ തന്നെ രാവിലെ രാവിലെ ഈ കളിക്കുന്നതോടു കൂടി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഈ പിന്നെ ആര് പറഞ്ഞാലും ആരോട് ചോദിച്ചാലും ആര് പറഞ്ഞാലും നമുക്ക് കളിയിലൂടിലെ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത് നമ്മളെ മൈന്ഡിനായാലും പിന്നെ ശരീരത്തിനായാലും എന്തായാലും നമ്മൾക്ക് അത് ഈ കളികൾ ഏത് രീതിയിലുള്ള പിന്നെ മത്സരങ്ങളായാലും ഒരു മത്സര ബുദ്ധിയോടെ ആയാലും പിന്നെ മറ്റേ നമ്മൾ ഒരു ഫ്രണ്ട്സിപ്പ് ഇത് മത്സരങ്ങളായാലും നമുക്ക് കുറേ അത് നമ്മളെ മൈന്ഡിനേയും ഇതിനെയും ഗുണം ചെയ്യുന്നുണ്ട് നമുക്ക് അതിൽ നല്ല ഗുണം കിട്ടുന്ന കിട്ടുന്നുമുണ്ട് പിന്നാ ഇതേപോലന്നെ നമ്മളെ ശരീരത്തിനാ ഏറ്റവും കൂട്തല് നമ്മടെ ശരീരത്തിനാന്ന് പിന്ന ഒര് ഇയിനെക്കൊണ്ട് ഒര് ഇത് കായികം കൊണ്ട് നമക്ക് കിട്ട്ന്നിള്ളത് പിന്നെ അതെ അതെപോലെ തന്നെ അത് കുറച്ച് ഒരു വേറെ വേറെ വിനോദങ്ങളുണ്ടല്ലോ കുറേ വിനോദങ്ങളുണ്ടാവും എല്ലാവർക്കും പിന്നെ അതിൽ കൂടിയിട്ട് നമുക്ക് ഓരോരോ ആള്ക്കാര്ക്ക് ഓരോരു ഇത് ഓരോരു വിനോദങ്ങളിലാരിക്കും ക്രേസ്സ് എന്ന് പറഞ്ഞാൽ ഓരോരോ അപ്പോ ടൂര്ണമെൻ്റ് പിന്നെ ഈ നമ്മളെ തന്നെ നാട്ടിൽ തന്നെ ഇത് മത്സരം മത്സരം അങ്ങനത്തെ കാര്യങ്ങൾ ടൂര്ണമെൻടായാലും പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്ലി മാച്ചയാലും പിന്നെ ഫ്രണ്ട്ലി ഇതായാലും എന്തായാലും നമുക്ക് നമ്മളെ മൈന്ഡിന് നല്ലൊരൂ പിന്നെ ഉപകാരപ്രദമായ പോസിറ്റീവ് എനര്ജി നല്കാന് നമ്മളെ ഓരോ മത്സരങ്ങള്ക്കും ഓരോ പിന്നെ കളികള്ക്കും സാധിക്കുന്നുണ്ട് അതേപോലെ അതേപോലെ തന്നെ നമ്മളെ ഇപ്പോഴത്തെ തലമുറ ഇപ്പോഴത്തെ നമ്മളെ എന്തായാലും ഇപ്പോഴത്തെ തലമുറ ഈ എല്ലാം അവരെല്ലാം ഇത് മനസിലാക്കി ഓരോരോ കളി കളികൾ പിന്നെ ഇതായിട്ട് കുറേ ആള്ക്കാർ ആള്ക്കാറുമായിട്ടുള്ള കുറേ അടുപ്പം ബന്ധം നമുക്ക് ഇത് കൂട്ടാൻ വേണ്ടി ശ്രമിക്കണം ഇപ്പോഴത്തെ നമ്മളെ ആള്ക്കാർ ഇപ്പോഴത്തെ പിന്നെ വളര്ന്നു വരുന്ന തലമുറ തലമുറയ്ക്ക് ഒരു സന്ദേശം മാത്രമേ ഞങ്ങൾക്ക് കൊടുക്കാനുള്ളു കുറച്ച് ആള്ക്കാരെ നല്ല രീതിയിൽ നമുക്ക് പിന്നെ ഈ ഒരു മത്സരങ്ങളിലേക്ക് ഇറങ്ങി വന്നാൽ അവരുടെ മൈന്ഡും ഇതെല്ലാം വേറെ വേറെ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കും നമ്മളെ പിന്നെ ഇത് കുറച്ച് ഇങ്ങനെ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ചിന്തകൾ വരുന്നതിൽ നിന്ന് നമ്മളെ മൈന്ഡിനെ ഫുള്ള് ഫ്രീ ആക്കിത്തരും അത് അതേപോലെ തന്നെ നമ്മുടെ മൈന്ഡ് പിന്നെ കുറച്ച് കണ്ട്രോളാക്കാനും ഇതെല്ലാം ചെയ്യാന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഓരോരു മത്സരങ്ങളിലായാലും നമുക്ക് സാധിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കളിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ നമുക്ക് കിട്ടുന്നത് നമ്മളെ ശാരീരിക പിന്നെ ശാരീരികപരമായിട്ടുള്ള കുറേ പോസിറ്റീവ് കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നുള്ളത് പിന്നേ നമ്മളെ ഈ അനങ്ങാത്ത ശരീരമാണെങ്കിൽ നമുക്ക് അറിയുമല്ലോ ഇങ്ങനെ ചെറിയ ഒരു പിന്നെ ഒന്ന് വീണാലോ പിന്നെ ഇതായാലോ നമുക്ക് പെട്ടെന്ന് വേദന അങ്ങനെ ഇങ്ങനെ എല്ലാം വര വരും പക്ഷേങ്കിൽ സ്ഥിരം ഒരു നിരന്തരം കളിച്ചു കൊണ്ടുള്ള ഒരാളാണെങ്കിൽ അവര്ക്ക് പെട്ടെന്ന് വില്മ്പളോ അങ്ങനെ ഇതായെങ്കിൽ പെട്ടെന്നുള്ള പിന്നെ പരിക്കുകളും കാര്യങ്ങളൊന്നും അങ്ങനെ വരില്ല അതെല്ലാം നമുക്ക് ശരീരത്തിന് അതെല്ലാം ഒരു ഉപകാരം ഗുണകരമാണ് പിന്നെ മൈന്ഡിന്റെ ആയാലും നേരത്തെ ഈ സൂചിപ്പിച്ച പോലെ പറഞ്ഞ പോലെ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊരു ഒരു ടെന്ഷനോ കാര്യങ്ങളോ വരുമ്പം അത് നമ്മൾക്ക് ഇങ്ങനെ കളി ഈ കളിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഒന്ന് ചര്ച്ച ചെയ്യുമ്പോൾ കുറച്ചാള്ക്കാരെ കൂടിയിട്ട് ഒരു ചര്ച്ച ചെയ്യുമ്പോൾ അത് നമുക്ക് നമ്മളെ മൈന്ഡിൽ മൈന്ഡിൽ നിന്ന് തന്നെ അത് പോകുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് അത് കൊണ്ടു വരാന് വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അത് ഈ രീതിയിലാണ് നമുക്ക് പിന്നെ നമ്മളെ ശരീരത്തിനായാലും ഇത് മനസ്സിനായാലും എല്ലാത്തിനെയും നല്ല ഒരു രീതിയിൽ ഏത് കളി ആയാലും നല്ല ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുപോവാന് വേണ്ടിയിട്ട് നമ്മളെ മൈന്ഡിനെ ഫ്രീയാക്കാന് വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിനേയും മൈന്ഡിനേയും ഒന്നിച്ച് തന്നെ നമുക്ക് ഫ്രീയാക്കാന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി വിടാന് വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്